ഹലോ ആ എടാ എടാ എനിക്ക് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസുകൾ വേണമായിരുന്നു ഒരു രണ്ട് മൂന്നെണ്ണം അത് എൻ്റെ കുറച്ച് ആൾക്കാർക്ക് അവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടാ റിസോർട്ട് പോലെ അല്ല അതായത് ഒരു വീട് വീട് സെറ്റപ്പ് അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ അതേപോലെ അതേപോലെ ആ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നല്ല ഒരു സെറ്റപ്പ് ആയിട്ടുള്ള നമ്മൾ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യണം ആ അവർക്ക് കുറച്ച് എന്താണ് പറയുക ഒരു എന്താണ് പറയുക ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലങ്ങൾ ആ എന്തൊക്കെ എഴുത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ആ നീ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് പറയുവാണെങ്കിൽ നല്ലതായിരുന്നു കുറച്ച് നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ മതി നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ വീടുകൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഫുൾ മറ്റേതല്ലേ അതായത് എന്താണ് പറയുക ആ മറ്റേ ടൈപ്പ് അല്ലേ അപ്പോൾ അത് വേണ്ട അലാണ്ട് ഉള്ള നമ്മൾ പഴയ രീതിയിൽ ഉള്ള പു ആ പുല്ല് മേഞ്ഞ വീടുകളോ

ആ അത് തന്നെ അത് തന്നെ മച്ച് ഒക്കെ ഉള്ള സൈസ് ടൈപ്പ് വീട് ഇല്ലേ ആ അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ ചിലർ താമസിക്കുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അവിടെ ഉള്ള എങ്ങനെ എങ്കിലും ഉള്ള വീടുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ര ഒരു മാസത്തേക്ക് ആ അപ്പം റേറ്റും ആ അത് കുഴപ്പമില്ല അത് നമുക്ക് ആ അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം ആ ജസ്റ്റ് ഒന്ന് നോക്കണം ആ പൈസന്റെ കാര്യം വിഷയം ഒന്നുമില്ല ഇപ്പോൾ നമുക്ക് നല്ല ഒരു വീട് ആണ് ആവശ്യം ഉള്ളത് ആ അപ്പോൾ വീട് ഒന്ന് കിട്ടുവാണെങ്കിൽ നീ എപ്പോഴാണ് വിളിക്കുക ആ ഓക്കേ ഓക്കേ ആ അത് വേണം ആ ആ അത് വേണം അത് വേണം ആ അവർക്ക് കുറച്ച് ആംബിയൻസ് ആയിട്ടൊക്കെ ഉള്ളതാണ് വേണ്ടത് ഇപ്പോൾ കേരളത്തിൽ എവിടെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ വയനാട്ടിൽ മാത്രം അല്ല മൊത്തത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ മതി ആ നമുക്ക് മൊത്തത്തിലാണ് എവിടെ എങ്കിലും നല്ലൊരു ആംബിയൻസ് കാര്യങ്ങൾ ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ആണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ആ എന്നാൽ ഓക്കേ എന്നാൽ നീ നോക്കിയിട്ട് പറ ആ ആദ്യം ഒന്ന് അടുത്ത് അന്വേഷിച്ച് നോക്ക് അവിടെ എവിടെയെങ്കിലും നല്ല ആംബിയൻസിന് പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് നിൻ്റെ വീടിൻ്റെ അവിടെ കുറേ എരിയകളൊക്കെ ഉണ്ട് നല്ലത് അങ്ങനെ നോക്കി നോക്ക് ആ ഓക്കേ എന്നാൽ ശരി എന്നാൽ